ഞാൻ ഒരു മാരത്തോണിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മാരത്തോണിൽ പങ്കെടുക്കുകയെന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്ററിൻ്റെ മാരത്തോണാണ് നമുക്ക് അത്രയും നേരം സ്റ്റാമിന പിടിച്ചു നിർത്തണം കിലോമീറ്ററെന്നു പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ കുന്നും ഒരുപാട് കുന്നൊക്കെ കയറുകയും ഇറങ്ങുകയുമൊക്കെ ചെയ്യണം നമുക്ക് അതിനനുസരിച്ച് സ്റ്റാമിന വേണം ഈ കുന്ന് കയാറാനും ഇറങ്ങാനുമൊക്കെ നല്ല സ്റ്റാമിനയുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അതും കറക്റ്റ് സമയത്ത് നമുക്ക് നമ്മുടേതായ മാക്സിമം എത്താൻ പറ്റുന്ന ടൈമിൽ എത്തുകയും വേണം ഈ പരമാവധി നമ്മൾ തലേന്നൊക്കെ മാരത്തോണിൻ്റെ തലേന്നൊക്കെ ഫുഡ് ഡയറ്റ് കണ്ട്രോൾ ചെയ്യണം അതേപോലെ ഫുഡ് ഫുഡ് ഐറ്റം നല്ല കനത്തിലല്ലാണ്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ചോറൊന്നും ഉണ്ണൂല്ല ചപ്പാത്തി ഐറ്റംസ് അതേപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡയറ്റ് ശ്രദ്ധിക്കും അതേപോലെ പിന്നെ ശ്രദ്ധിക്കുകയെന്ന് പറയണത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഐറ്റംസായിരിക്കും രാവിലെ കഴിക്കുക രാവിലെ കുറച്ച് വെള്ളം കുടിക്കും അതും വെള്ളം ആവിശ്യത്തിന് ഇത്തിരി പിന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് സിപ്പ് സിപ്പ് ആയിട്ട് വെള്ളം കുടിക്കും അതേപോലെ ഫ്രൂട്ട്സ് എന്തെങ്കിലും പഴമോ അങ്ങനെയുള്ള ആപ്പിൾ അങ്ങനെ ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്തെങ്കിലും ഒക്കെ കഴിക്കും എന്നിട്ടാണ് ഓടാറുള്ളത് ഓടുമ്പോൾ തന്നെ നമ്മൾ ശ്വാസം മൂക്കിൽക്കൂടി മാത്രമേ വലിക്കാറുള്ളൂ മൂക്കിൽക്കൂടി ഉള്ളിലേക്കെടുക്കും മൂക്കിൽക്കൂടി തന്നെ വെളിയിലേക്ക് വിടും അത്രയും കൂളായിട്ട് ഓടും മാക്സിമം പറ്റുന്ന അത്രയും കൂളായി കാലുകളൊക്കെ നീട്ടി വച്ച് നന്നായി നീട്ടി വച്ച് ഡിസ്റ്റൻസിട്ട് ഓടാറുള്ളത് അതേപോലെ ഞാൻ ഹാർഡായിട്ട് ഓടാറില്ല ഇതൊക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കാറുള്ളത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററൊക്കെ ഓടാറുണ്ട് എൻ്റെ സ്റ്റാമിന കണ്ട്രോൾ ചെയ്തിട്ടായിരിക്കും ഓടുക അപ്പോൾ ഇറക്കം എത്തുമ്പോൾ കൂളായി ഇത്തിരി സ്ലോ ആയിട്ട് ഓടും കുന്ന് കയറാൻ ഉള്ളതൊക്കെ നമ്മൾ സ്ലോ ആവാണ്ട് കുറച്ച് സ്റ്റാമിന എടുത്തിട്ട് പുഷ് ചെയ്തിട്ട് ഓടും ഒന്ന് സ്ലോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മടി വരും മടി വരിക പറഞ്ഞാൽ ഓ ഇതെന്നെക്കൊണ്ട് ആവില്ല ഒന്ന് പുഷ് ചെയ്തിട്ട് സ്റ്റാമിന ഇട്ടിട്ട് ഓടുമ്പോൾ സിമ്പിൾ ആയി കയറാൻ പറ്റും എറങ്ങുമ്പോൾ ഒന്ന് കൂളായി ഒന്ന് റിലാക്സായിട്ടൊക്കെയാണ് കുന്നൊക്കെ ഓടി ഇറങ്ങാറുള്ളത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഓടുമ്പോൾ